എന്റെ അഭിപ്രായത്തില് ചിതരചന പോലെയുള്ള കാര്യങ്ങള് അതിനൊരു പ്രത്യേക വയസ്സ് നമുക്കൊരു നിശ്ചയിച്ചെടുക്കാന് പറ്റുമെന്നെനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല കാര്യം ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്റെ കുട്ടിക്ക് പത്ത് വയസ്സുണ്ട് പക്ഷെ അവനൊരു കൃത്യമായൊരു നിശ്ചിത പ്രായപരിധിയിലൊന്നുവല്ല അവന് വരക്കാനോ അല്ലേല് അവര്ക്ക് വേണ്ട ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു എജുക്കേഷണല് സിസ്റ്റത്തിലെ അവര്ക്ക് ഒരുപാട് ആക്റ്റിവിറ്റിസ് ചെയ്യാനുണ്ട് സ്വയം മറ്റ് പല കാര്യങ്ങളും അതായത് പുസ്തകത്തില് നിന്നും പഠിക്കുക മാത്രം എന്നല്ലാതെ അവര്ക്ക് പല കാര്യങ്ങളും പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടുകളില് നിന്നും അവര് ചെയ്ത് ശീലമാക്കി എഴുതി ശീലമാക്കി വരച്ച് പഠിക്കുന്ന കാര്യങ്ങളെ വരച്ച് പേപ്പറിലാക്കാനായിട്ട് അവര്ക്കൊരുപാട് അവസരങ്ങളുണ്ട് അപ്പം അവര്ക്ക് ചിത്രരചന അവര്ക്കു ഒരു ചിത്രരചന പഠിച്ച ഒരു കുട്ടിയെന്നുള്ളതല്ലാതെ ആരും ആ അങ്ങനെ ഉള്ള അവസരങ്ങള് പ്രയോജനപ്പെടുത്തുമ്പത്തേന് അവർക്കത് ഉപയോഗിക്കേണ്ട വരുമ്പോള് സ്വയം വരയ്ക്കാന് പഠിക്കും ച്ച് പോവും വരയ്ക്കണ്ടത് ആവശ്യകത അവര്ക്ക് വരുന്നത് കൊണ്ട് അവര് അത് ശീലമായി പോകുന്നുവെന്നാണ് അതില്ത്തന്നെ അങ്ങനെയാണെങ്കില് അല്പം വരയ്ക്കാന് തോന്നണമെങ്കില് ചിത്രരചന ശീലിക്കണം ഇനിയിപ്പം ചിത്രരചന ശീലിക്കാനുള്ള ഒരു വയസ്സ് എന്ന് പറഞ്ഞാല് കൊച്ചുകുട്ടികള് നമ്മള് പറയാറുണ്ട് വീടിന്റെ ഭിത്തികളിലും അല്ലേൽ എവിടെയേലും ഒന്ന് കരി കൊണ്ടോ അല്ലേൽ പെന്സില് കൊണ്ടോ ഒരു കോറിയിട്ടല് അവര് കൈയിൽ കിട്ടുന്ന അതെന്താണോ അതുകൊണ്ട് കോറിയിട്ട് ചിത്രരചന വരച്ച് ശീലിപ്പിച്ച ശീലിച്ച ആള്ക്കാരെയൊക്കെ നമുക്കറിയാം പലര് പറയുന്നത് ഞാന് കേട്ടിട്ടുണ്ട് ഞാനിന്നപോലെ എന്റെ വീട്ടിന്റെ ഭിത്തിയിലും അല്ലേല് കാണുന്നിടത്ത് അവിടെ എവിടെ നേലൂര് ബുക്കിലോ പേനയിലോ അല്ലേല് കൈയിൽ കിട്ടുന്ന എന്തിലും ഒന്നു വരയ്ക്കാനൊരു പ്രചോദനം തോന്നിയൊരു വര വരയ്ക്കാനാണേലും പ്രചോദനം തോന്നി ചെയ്തത് കൊണ്ടാണിന്നെനിക്ക് അങ്ങനെ ചെയ്യാനൊരവസരം എനിക്കൊരു താല്പ്പര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിത്രരചന എനിക്ക് സാധ്യമായതെന്ന് ഞാന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികള് നമ്മൾ അക്ഷര വിദ്യാഭ്യാസം കൊടുത്ത് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നൊരു മൂന്ന് വയസ്സ് മുതല് മൂന്ന് വയസ്സിന് മുന്പേ ഉണ്ടെങ്കില്പ്പോലും ഒരു മൂന്ന് വയസ്സ് മുതലാണ് നമുക്ക് കുഞ്ഞുങ്ങള്ക്ക് അവരുടെ കയ്യില് കിട്ടുന്ന ഒരു പേനയോ പെന്സിലോ കാര്യങ്ങളോ അവര്ക്ക് കയ്യില് ചേര്ത്തു പിടിച്ചുകൊണ്ടവര്ക്ക് ഒരു സ്ലേറ്റിലോ മറ്റൊ നമ്മുടെ നാട്ടില് പൊതുവേ സ്ലേറ്റ് ഉപയോഗിക്കുന്നു സ്ലേറ്റിലോ നായ മറ്റൊ കല്ല് പെൻസിൽ കൊണ്ട് വരച്ച് തുടങ്ങാനവര് ശീലിക്കുന്നതാണ് ഒരു പ്രായത്തിലാണ് അപ്പോഴ് ചിത്രരചന ആരംഭിക്കാന് പ പോലുള്ള കലകള് കുട്ടികളാരംഭിക്കാനുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊഴാണവര് ചുറ്റുപാടുകളെ ഒക്കെ ശ്രദ്ധിക്കാനും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അവറെ മനസ്സില് തന്നെ ഉള്ക്കൊള്ളാനും അങ്ങനെ ചിത്രം വരയ്ക്കാനും അവര് ശീലിക്കുന്ന സമയം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വയസ്സ് തൊട്ടാണ് പിള്ളേര് കൈകളിലെടുത്ത് വരയ്ക്കാനും കോറി വരയ്ക്കാനുമൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ വാ വാസനയുള്ള കുഞ്ഞങ്ങളാണെന്ന് നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാല് മാതാപിതാക്കള്ക്ക് അല്ലേ മറ്റുള്ളവര്ക്കതിന് അവരോട് ബന്ധപ്പെട്ടതായ ടീച്ചേഴ്സിനും ഒക്കെ അവര്ക്കതിനുള്ള പ്രചോദനം കൊടുക്കാനും അതിന് വേണ്ട അതിനുള്ള ടാലന്റ് ഉള്ള കുഞ്ഞുങ്ങളാണല്ലൊ അവരെ ശീലിപ്പിക്കാനും എന്നാൽ പഠിപ്പിക്കാനുള്ള അവസരങ്ങളുടെങ്കില് അവരെ അവസരം ഉപയോഗിച്ച് കൊടുത്തു വിടാനായിട്ടും മുന്നോട്ടവരെ മുന്നോട്ട് നടത്തിക്കൊണ്ട് വരാനായിട്ടും തുടങ്ങുന്ന നല്ല കാര്യങ്ങളങ്ങനെ അങ്ങനെ വളര്ത്തിക്കൊണ്ടു വരുന്ന കുട്ടികളാണ് മുന്നോട്ട് ചിത്ര രചനയിലൊക്കെ കൂടുതല് താല്പ്പര്യവും ആ അതിലേക്കൊരു അവസരങ്ങള് കൊടുക്കുമ്പോള് മാത്രമേ നമുക്ക് ആ താല്പ്പര്യം നമുക്ക് അവർക്ക് വളര്ത്തിക്കൊണ്ടുവരാന് സാധിക്കുകയുള്ളു അപ്പോൾ ഒരു അഞ്ച് വയസ്സ് ഏജ് മുതല് ടാലന്റ് ഉള്ള കുഞ്ഞുങ്ങള് ചുറ്റുപാടിനെ കേട്ട് മനസ്സിലാക്കി ശീലിക്കുന്ന കുഞ്ഞുങ്ങള്ക്ക് നമുക്ക് അത് കൊടുത്ത് മുന്നോട്ട് വരുത്താന് സധികത്തുള്ളു